ഹലോ എൻ്റെ പേര് സി എൻ്റെ പേര് സിയ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു അഞ്ച് വർഷം മുമ്പ് ആ ഒരു അഞ്ച് വർഷം മുമ്പ് എൻ്റെ വീട് പെയിൻറ് ചെയ്തിരുന്നു അതപ്പോൾ നിങ്ങൾ ആണ് പെയിൻറ് ചെയ്തത് അപ്പോൾ അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ വീട് ഞാൻ അങ്കമാലിയിലാണ് അങ്കമാലി പ്രോപ്പർ അങ്കമാലി അല്ല കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് പവിഴപ്പൊങ്ങ് എന്ന് പറയും തോമസിൻ്റെ വീട് തോമസ് ചേട്ടനെ അറിയാമായിരിക്കും ആ ആ തോമസിൻ്റെ മോളാണ് ആ വീട് കുറച്ച് പുതുക്കി പണിതിരുന്നു പെയിൻറ് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെയിൻറ് ആയിരിക്കണം കളർ നമ്മൾ തീര് തീരുമാനിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ തീരുമാനിക്കാം പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പെയിൻറ് ആയിരിക്കണം അത് മാത്രം മതി ഏകദേശം ഒരു ആയിരത്തിയഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരും ആ ഓക്കെ അപ്പോൾ ഇപ്പം ആ ഓക്കെ അപ്പോൾ ഏകദേശം എത്ര എമൗണ്ട് ആവും ഇതിനൊക്കെ ഈ പെയിൻറ് ചെയ്യാനൊക്കെ

ആ പിന്നെ എന്നത്തേക്ക് വരാൻ പറ്റും ആ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പോൾ വീട്ടിലോട്ട് വരാൻ പറ്റുമോ മെറ്റീരിയൽസ് നിങ്ങൾ എടുത്താൽ മതി അതാവുമ്പോൾ നല്ലതൊക്കെ നോക്കി എടുക്കാൻ പറ്റുമല്ലോ ആ ഓക്കെ